ഹലോ സുധാകരൻ ഹോട്ടലല്ലേ ഞാനേ അവിടുന്ന് ഒരു ചിക്കൻ ബിരിയാണി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മടെ ഭാര്യയും മക്കളും പറഞ്ഞു ചിക്കൻ ബിരിയാണിയൊന്നും വേണ്ട ഉപ്പാ ചിക്കൻ ബിരിയാണിയൊക്കെ നമുക്ക് നമ്മുടെ മറ്റേ വീട്ടില് വെക്കണതല്ലേ നിങ്ങളൊന്നു മന്തി ഓർഡറാക്കീന്നു പറഞ്ഞു അപ്പോൾ നമുക്കിപ്പോൾ എന്താ ചെയ്യാൻ പറ്റുക മന്തിയൊക്കെയല്ലേ പറ്റൂ കെട്ടിയവളും കുട്ടികളും കെട്ടിയവളും കുട്ടികളും പറഞ്ഞത് കേക്കാതിരുന്നാൽ എന്നെ ചവിട്ടി പുറത്താക്കില്ലേ അപ്പ നമ്മള് എന്ത് ചെയ്ത് മന്തി ആക്കാന്ന് വിചാരിച്ച് ഒരു ക്വാട്ടർ മന്തി അത് നമക്ക് നമ്മള് കെട്ടിയവൾക്കും കുട്ടികൾക്കും ഒരു ഫുള്ള് അൽഫാമ് അൽഫാം മന്തി പെരി പെരി തന്നെ ആയിക്കോട്ടെ പെരി പെരി എക്സ്ട്രാ മയണൈസ് കെട്ടോ പിന്നെ കൊറച്ചു വെജ്ജീസ് ഇരുന്നോട്ടെ പിന്നെ മറ്റേ സൽത്താ ഇല്ലേ സൽത്താ അത് കുറച്ച് കൂടുതല് വെച്ചോ നമുക്ക് പെരുത്തിഷ്ടാണ് ആ സാധനം ഒന്നും നോക്കണ്ട ഇപ്പോൾ കൊടുത്തയച്ചോളീട്ടാ അധികം വൈകൊന്നും ഇല്ലല്ലോലെ നമ്മളുടെ വിശന്നിട്ട് പന്തം കത്തി ഇരിക്കുകയാണ് അതുകൊണ്ടാണ് പിന്നെ വല്ല ഓഫറു വല്ലതും ഉണ്ടോ നിങ്ങളുടെ മന്തീല് എനിക്ക് ഓഫറിൻ്റെ കാര്യമൊന്നും അറിയില്ലേ ഓഫറുണ്ടെന്ന് വച്ച് കഴിഞ്ഞാൽ നൂറ്റിതൊണ്ണൂറ്റൊമ്പത് വച്ചാണ് തോന്നാണു ഇല്ലേ നിങ്ങളെ അൽഫം മന്തിക്ക് നൂറ്റിതൊണ്ണൂറ്റൊമ്പത് കുഴപ്പമൊന്നുമില്ല ആഹ് സെറ്റാക്കാം നൂറ്റിതൊണ്ണൂറ്റൊമ്പത് ഇല്ലേ കുഴപ്പമില്ല ശരി പിന്നിപ്പം എന്താണ് ആ പെപ്സി വേണട്ടാ പെപ്സിയില്ലാണ്ട് എന്ത് മന്തി പെപ്സിയാണ് നമ്മടെ മെയിന് എഹ് ഒന്നും നോക്കണ്ട പെപ്സി ഒരു കുപ്പി വെച്ചോളി പെപ്സി രണ്ട് കുപ്പി വച്ചോളി പിന്നെ മയണൈസിണ്ടല്ലോ ഇങ്ങളെ ഗാർലിക് മയണൈസ് മതിയേ ഗാർലിക് മയണൈസ് ആകുമ്പോൾ പൊളി സാധനമാവും അതാ മന്തിടെ ഒപ്പം വെച്ചു കുഴച്ച് കഴിക്കുമ്പോൾ ഉണ്ടല്ലോ എൻ്റെ മച്ചാനെ വായിലിപ്പ തന്നെ വെള്ളം വരുണ് നല്ല ഗാർലിക് ഫ്ലെവർ ഉള്ള നല്ല തിക്ക് വേണട്ടാ തിക്കില്ലെങ്കി നമ്മള് കബൂർ സീൻ ആക്കും അപ്പ മനസിലായില്ലേ പിന്നെ വേണ്ടത് എന്താ വച്ച് കഴിഞ്ഞാൽ അത്രന്നേ വേണ്ടൂ അപ്പ എന്നാ ശരിന്നാ അയ്യോ വെക്കല്ലേ വെക്കല്ലേ വെക്കല്ലേ ഇപ്പളാണ് ഒരു കാര്യം ഓർമ്മ വന്നത് പെപ്സി മാറ്റിട്ട് കൊക്കക്കോള ആയിക്കോളീ കൊക്കകോളയാകുമ്പോൾ കുറച്ചൂടെ പെരുത്ത് ഉണ്ടാവും അത് പറഞ്ഞാൽ കൊക്കകോളയാണ് നമ്മള കെട്ടിയവൾക്ക് ഇഷ്ടേ കൊക്കോള മതി ഏഹ് കൊക്കക്കോള കൊക്കകോളക്ക് തണുപ്പ് വേണം ട്ടാ തണുപ്പില്ലെങ്കിൽ സീനാക്കും നമ്മ നല്ല സീനാക്കും കട്ടയ്ക്ക് സീനാക്കുമേ തണുപ്പ് വേണം പിന്നിപ്പം എന്താണ് സൽത്ര കാര്യം മറക്കണ്ട വെജ്ജീസ് മറക്കണ്ട മയണൈസ് മറക്കണ്ട അപ്പോൾ ഇങ്ങള് കൊടുത്തയച്ചോളി ഏഹ് ഒരു ക്വാട്ടർ മന്തി ഒരു ഫുള്ള് പെരി പെരി അൽഫം മന്തി അപ്പ മറക്കണ്ട അയച്ചോളി ഒന്നും നോക്കണ്ട വേഗം അയച്ചോളി ഒട്ടും വൈകണ്ട നമ്മള് വെശന്ന് പണ്ടം കത്തി നിക്കാണപ്പാ കിട്ടിയ ഇപ്പോ തിന്നണം പറഞ്ഞു നിക്കാണ് ചൂടുണ്ടാവില്ലേ ചൂടുള്ളത് വേണേ ആ പിന്നെ ക്വാട്ടർ മന്തിയില്ലേ പറഞ്ഞത് അത് ചെസ്റ്റ് പീസ് വെക്കണട്ടാ ലെഗ് പീസക്കെ നഷ്ട്ടാണ് ചെസ്റ്റ് പീസ് വച്ചോളി ഇങ്ങള് അപ്പ എന്നാ എന്താ വച്ചാ വേഗം ചെയ്തൊളീ അപ്പ ശരി